മൽസ്യ മത്സ്യബന്ധനം നടത്തുക എന്ന് പറയുമ്പോഴേക്കും നമ്മള് കൂട് ഇടുകയാണ് സാധാരണ കൂടിട്ട് നമ്മള് ന നടത്തുന്ന ശീലമാണ് എനിക്കുള്ളത് പൊതുവെ ആ മത്സ്യത്തെ നമ്മള് അതിൽനിന്ന് രാവിലെ എടുക്കും അതായത് വൈകുന്നേരം രാവിലെ നമ്മള് കൂട് കൃത്യമായി സ്ഥാപിക്കുകയും ആ പിറ്റേ ദിവസം രാവിലെ ആ കൂട് പൊക്കി അതിന്റെ മത്സ്യങ്ങൾ എടുക്കുക അതിനിടയ്ക്ക് കാറ്റോ മഴയോ ഉണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും കുടകൾ ചൂടിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു അല്ലാതെ മറ്റു കാറ്റോ മഴയോ അങ്ങനെ ഒരിക്കലും ഒരു വിഷമമായി വരുന്നില്ല മോശം കാലാവസ്ഥ എന്നു പറയുമ്പോൾ മീൻ കിട്ടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം എന്നു പറയുന്നത് മഴക്കാലം ആണ് മഴയില്ലെങ്കിൽ ഒരിക്കലും ഈ മത്സ്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ മഴയുള്ള സമയങ്ങളിൽ മാത്രമേ കൂടുതലും മൽസ്യം ഈ ജലത്തിലൂടെ ഓടുകയും അത് നമ്മുടെ ഒടക്ക് വലകളിലും വലകളിലും ഈ കൂടുകളിലും ഒക്കെ നമുക്ക് കിട്ടുകയുള്ളു അപ്പോള് നമുക്ക് എപ്പോഴും ആ പിന്നെ കൊടുംകാറ്റുകളും മറ്റുള്ളവ വരുമ്പോൾ ഒരിക്കലും നമ്മള് മത്സ്യബന്ധനത്തിന് പോകാറില്ല കാര്യം നമുക്ക് വള്ളത്തേലാണേലും സഞ്ചരിക്കാൻ മേലാത്ത ഒരു സാഹചര്യം ആയിരിക്കും വെള്ളം തിരകളൊക്കെ വന്ന് വള്ളം മുങ്ങുകയും ഒക്കെ ചെയ്യും പിന്നെ അനുയോജ്യമായൊരു കാര്യം കൂട് സ്ഥാപിച്ച് മീൻ പിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് വലിയ തലവേദനയുള്ള കാര്യം അല്ല നമുക്ക് ഏത് സമയത്തും എപ്പോള് വേണമെങ്കിലും അതെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അതൊരു നല്ല കാര്യമാണ് സാധാരണ ഞങ്ങള് മൽസ്യം പിടിക്കുന്നത് വലയിട്ടും കൂടുവെച്ചും ആണ്